ഇപ്പോൾ എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുകാണെങ്കിൽ എൻ്റെ പേര് ജോർജ് എൻ്റെ ഭാര്യെൻ്റെ പേര് ഗ്രേസി എനിക്ക് രണ്ടുമക്കളാണ് ഉള്ളത് ഒരാൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞു അവർക്കൊരു കുട്ടിയുണ്ട് പിന്നെ ഒരാൾ ഗൾഫിലാണ് അപ്പം പുള്ളി അവൻ കുറെനാളായിട്ടാണ് അവിടെത്തന്നെയാണ് രണ്ട് മൂന്ന് വർഷമായിട്ട് അവിടെത്തന്നെയാണ് മൂത്തവൻ ഇവിടെ ഒരു ബസ് ഡ്രൈവർ ആയിട്ട് പോവുന്നുണ്ട് അപ്പോൾ അവന് ഒരു ഒരു മോനുണ്ട് അവനിവിടെത്തന്നെയാണ് ഇളയവനിടക്കെ വരുള്ളൂ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കൾ ഇഷ്ടംപോലെ പേരുണ്ട് എൻ്റെ പേര് തന്നെയുള്ള ഒരാളുണ്ട് ജോർജെന്ന് പറഞ്ഞിട്ട് പിന്നെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബേബി ഉണ്ട് പിന്നെ താഴെ ശശി അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് അവർ നല്ല രീതിയിലുള്ള സുഹൃത്തുക്കളാണ് പിന്നെ അത്യാവശ്യം വെള്ളം അടിക്കുന്ന ടീമുള്ളവർ ഉണ്ട് അല്ലാത്ത ആൾക്കാരുണ്ട് അപ്പം എല്ലാവരും ആയിട്ടും ഞാൻ ആദ്യമേ നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇവരൊക്കെയാണ് മെയിൻ ആയിട്ട് എൻ്റെ കൂട്ടുകാർ പിന്നെ ഇതാണ് എൻ്റെ കുടുംബമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ